ഇപ്പോൾ ഞാൻ ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ എന്റെ കോളേജില് അത് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കോളേജില് ഇപ്പോൾ ബി ആർക്കെന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറീരിയർ ഡിസൈൻ നമ്മുടെ വീടിൻ്റേയും കാര്യങ്ങൾ അങ്ങനെ ആർക്കിടെക്ചർ വലിയ വലിയ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അങ്ങനത്തെയാണ് മെയിനായിട്ടവര് ഫോക്കസ് ചെയ്യുന്നത് അതൊരു നല്ല ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഓരോ തലത്തി തലങ്ങളിലും വിവിധമായ ഇപ്പോൾ എന്താ നോക്കണേ നമ്മള് മെയിനായിട്ട് നോക്കുമ്പോൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആർക്കിടെക്ചർമാരും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ പണ്ടത്തെപ്പോലെയൊന്നുമല്ല ഓരോത്തിനും ഇപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മള് ഒരു ബിൽഡിങ് പണിയാനാണെങ്കിലും അത് അതുപോലെ അത് ഇടിച്ചു പൊളിക്കാനാണെങ്കിലും നമ്മള് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളോ ചെയ്യണം അപ്പോൾ ഈ മേഖലയില് നല്ല രീതിക്കുള്ള നല്ല രീതിക്കുള്ള ഒരു ജോലി അവസരങ്ങളും നമ്മള് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ സർക്കാർ കോളേജുകളില് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ബി എസ് സി സ്ട്രക്ചറിംങ് പറഞ്ഞിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ മണ്ണ് കൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക അതുപോലെ വര മറ്റേ വരയ്ക്കാനുള്ള പരിപാടികള് അങ്ങനത്തെ കുറേ കോഴ്സുകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യന്റെ സ്വതസിദ്ധമായ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കഴിവാണ് ഉള്ളത് ആ കഴിവിനനുസരിച്ച് ഉള്ള ഇപ്പോൾ കോഴ്സുകൾ കുറേ കോഴ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടേതായ നമുക്ക് അതായത് പണ്ടെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ രണ്ട് സയൻസോ അല്ലെങ്കിൽ കൊമേർസോ അതെടുത്തു കൊണ്ട് തീരും ഇപ്പോൾ അങ്ങനെയല്ല അത് നമുക്ക് പഴയ നമുക്കെന്താണോ പഠിക്കാൻ താല്പര്യം അങ്ങനത്തെ ഫീൽഡുകള് നമുക്ക് ചൂസ് ചെയ്തു പഠിക്കാം അതിനനുസരിച്ച് നമുക്ക് ജോലികള് കിട്ടും

അപ്പോൾ നമുക്കെന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് അങ്ങനെ തിളങ്ങാനോ അല്ലെങ്കില് വേറെ കാര്യങ്ങള് ചെയ്യാനോ ഒന്നും അതിൽ പറ്റുന്നില്ല നമുക്ക് അതായത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ വിഷയം പിന്നെ നമ്മള് മറന്നു പോവുകയാണ് കാരണം നമ്മുടെ ജീവിതം പിന്നെ വേറെ വഴിക്ക് രീതിയിലായി വേറെ രീതിയില് മുന്നോട്ടു പോകാൻ തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളാ കഴിവുകളെ മറക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വേറെ കോഴ്സുകളും ഇങ്ങനെ തുടങ്ങണ കാരണം കൊണ്ട് നമ്മുടെ സ്വന്തമായ കഴിവുകളെ നമുക്ക് ഉത്തേജിപ്പിച്ച് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്